നവജാതശിശുക്കൾക്ക് പൊതുവെ ഇവിടെ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ കേരളത്തിലായിക്കോട്ടെ വളരെ നല്ല വൃത്തിയുള്ള സാഹചര്യമാണ് ആശുപത്രികൾ ആയാലും വീടുകൾ ആയാലും നിർദ്ദേശിക്കുക അതുപോലെ തന്നെ അങ്ങനെ വൃത്തികേടായിട്ടുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ജനിച്ച കുട്ടിയെ കൊണ്ടുപോയി വയ്ക്കാറില്ല അഥവാ ഇനി വൃത്തികെട്ട അതായത് ഇപ്പോൾ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന നവജാതശിശുവിന് രോഗം വരാതിരിക്കാൻ അതിന് വേണ്ട ആൻറ്റി ബയോ ഇഞ്ചക്ഷൻസോ ഇല്ലെങ്കിൽ മരുന്നോ എല്ലാം നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അവിടെനിന്നൊരു രോഗം പിടിപെടുകയോ ഇല്ലെങ്കിൽ അസുഖം വരുക വരില്ല അതിനു വേണ്ട എല്ലാ മുൻകരുതലുകളും ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തു ചെയ്യുന്നതാണ് അല്ലാതെ അത്ര വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് രോഗം വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഹോസ്പിറ്റലിൽ നിന്നു ചെയ്യും അതിനു വേണ്ട വാക്സിനുകളായിക്കോട്ടെ അതിനു വേണ്ട മരുന്നുകളായിക്കോട്ടെ കുട്ടികൾക്ക് അവിടുന്ന് ഇതാക്കും